സി എച്ച് ഹോസ്പിറ്റൽ ഹലോ എന്തായിരുന്നു ബുദ്ധിമുട്ട് എന്ത് എന്താണ് ബുദ്ധിമുട്ട് ഇപ്പോഴുള്ളത് എത്ര ദിവസമായി പനി തുടങ്ങിയിട്ടെന്നാ പറഞ്ഞത് മൂന്ന് ദിവസമായി ആഹ് ആഹ് വേറെന്താ ബുദ്ധിമുട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് എവിടെയെങ്കിലും യാത്ര പോയിരുന്നോ വീട്ടിൽത്തന്നെ ആയിരുന്നു ഓക്കെ തണുത്ത വെള്ളം കഴിക്കുക തണുപ്പുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ആ ഓക്കെ ജലദോഷം കഫക്കെട്ട് അങ്ങനെ വല്ലതും ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ശ്വാസതടസ്സം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്മെൽ വ്യത്യാസം ആ ഡേറ്റ് വ്യത്യാസം ഉണ്ട് ആ ഓക്കെ സ്മെല്ലോ സ്മെൽ കിട്ടുന്നുണ്ടോ

കോവിഡ് മുന്നേ ആർക്കെങ്കിലും വന്നിരുന്നോ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആണോ ഓക്കെ സമ്പർക്കമൊന്നുമില്ല അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ ട്രീറ്റ്മെന്റുണ്ടായിരുന്നോ ഇല്ല ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ ഓക്കെ കോവിഡ് വാക്സിൻ എടുത്തിരുന്നോ വാക്സിൻ ഏതാണ് എടുത്തത് ഓക്കെ കോവാക്സിൻ ആണോ കോവാക്സിൻ ഓക്കെ എത്ര ഡോസ് എടുത്തു ഒന്നേ എടുത്തിട്ടുള്ളൂല്ലേ സെക്കൻറ് ഡോസു കൂടെ എടുക്കണം ഹെൽത്ത് ഇഷ്യൂസ്സാണ് ഒന്ന് അത് എത്രയും പെട്ടന്ന് ഡോക്ടറെ വന്ന് കാണൂ കേട്ടോ